ആ ഹലോ ആരാ വിളിക്കുന്നത് ആ അതെല്ലൊ എന്താ മാഡം വിളിച്ചത് ആ പറയൂ എന്താണ് വേണ്ടത് ആ അര കിലോ എൺപത് ആണ് എത്ര എന്തെടെ വേണ്ടത്

ചക്ക ഉണ്ട് വരട്ടി ഉണ്ട് കുക്ക് ആ ബൾക്ക് ആയിട്ട് എടുക്കാനും പറ്റും അല്ലെങ്കിൽ എങ്ങനെ ആണെങ്കിലും പറ്റും ഓരോന്നു ആയിട്ട് ആണെങ്കിലും തരാം കൂടുതൽ ആയിട്ട് തരാൻ ആണെങ്കിൽ അങ്ങനെയും പറ്റും

പഴുത്തതിനു ആണ് റേറ്റ് കൂടുതൽ പഴം ഒരു കിലോ നൂറ്റി ഇരുപത് പപ്പായ അതും കിലോ അനുസരിച്ച് ആണ് ഒരു കിലോ നൂറ്റി നാല്പത് രൂപയാണ് കിലോ നൂറ്റി നാല്പത് ആ ആ ആ ക്രിസ്മസ് ആയതുകൊണ്ട് ഓഫർ ഉണ്ട് എങ്ങനെ ആണേലും റെഡി ആക്കി കിട്ടും ആ അഡ്രെസ്സിലെയ്ക്ക് കൊണ്ടുതരാൻ ആണെങ്കിലും തരാം പറ്റും അല്ലാതാണെങ്കിലും കുഴപ്പമില്ല

ആ ശരി ശരി അങ്ങനെ മതി ഓക്കേ ശരി